ഒരു ഗ്രാമീണ സമൂഹത്തിൽ ജീവിച്ച് വളർന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് പോവേണ്ടി വരുമ്പോൾ അവിടുത്തെ സംസ്കാരവും ഭാഷയും ഭക്ഷണവും വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഗ്രാമീണ സമൂഹത്തിലെ ആളുകൾ തമ്മിലുള്ള സഹവർത്തിത്വം അവിടെ കാണാൻ സാധിക്കില്ല ആശയവിനിമയത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഭക്ഷണശൈലിയിലും വ്യത്യസ്തമായിരിക്കും പല പ്രദേശങ്ങളിലും കാലാവസ്ഥ വ്യത്യസ്തമായതിനാൽ അവയോട് യോജിച്ച് പോവുക എന്നത് പ്രയാസകരമാണ് സ്വന്തം നാട്ടിലെ ആളുകളോടുള്ള പെരുമാറ്റമായിരിക്കില്ല മറ്റൊരു പ്രദേശത്തെ ആളുകളോട് അവർ കാണിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമീണ സമൂഹത്തിൽ നിന്നും പുറത്തേക്കുള്ള യാത്രയിൽ കാലാവസ്ഥയും സംസ്കാരത്തിലും ഭക്ഷണത്തിലും ഭാഷ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും